ഇപ്പോയി ഉപഭോക്താക്കള്ക്ക് സുസ്ഥിരവും ധാര്മികമായി കോഴി വളര്ത്താന് എങ്ങനെ പിന്തുണയ്ക്കുന്ന്വച്ച എനിക്കങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അറിയാവുന്ന ഞാന് പപ്പേ അമ്മേം ചെയ്യുന്നത് അങ്ങനത്തതൊക്കെ അറിവേ എനിക്കുള്ളു അപ്പോം മനസ്സിലാക്കിയത് വെച്ചിട്ട് ഇപ്പോൾ അവർക്ക് അവര്ക്ക് പൊതുവായിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും ഐഡിയാസ് ഇപ്പോൾ അറിയാമെന്നുള്ളവർ പറഞ്ഞ് കൊടുക്ക്വാരിക്കല്ലൊ അത് അറിയാവുന്നത് അവര്ക്ക് കിട്ടിയ ചിലപ്പം ഇങ്ങനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നായിരിക്കും അതിന് പ്രാദേശമായി ലഭിക്കുന്ന എന്തെങ്കിലും ഇതായിരിക്കാം അറിവായിരിക്കാം അവര്ക്ക് കോഴി വളര്ത്താനായിട്ട് അവരെ സഹായിച്ചിട്ടുള്ളത് പിന്നെ ആ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ എന്താണ് ഏത് തരത്തിലുള്ള മൃഹങ്ങളെ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കാമെന്നുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ ഈ ക്ലൈമറ്റിനും അല്ലെങ്കില് ഏത് ഇതായിരിക്കും ചെയ്യുമ്പം ബെട്ട്രായിട്ട് നമുക്ക് റിസള്ട്ട് കിട്ട് ഇപ്പോൾ കോഴി വളര്ത്തിയാൽ മുട്ട വിറ്റ് നമുക്കിപ്പോൾ കാശ് കിട്ടും ചെയ്തിട്ടുണ്ടങ്ങനെ മുട്ട വിറ്റ് അപ്പോൾ ആ അതുപോലെ ഇപ്പോൾ ആട് പശു അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൃഷി ചെയ്ത് നമുക്കതീന്ന് പൈസ സമ്പാദിക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള നല്ല ക്ലൈമറ്റിനനുസരിച്ച് അല്ലെങ്കിൽ ചത്തു പോകാത്തതായിട്ട് അല്ലെ പെട്ടന്ന് അസുഖങ്ങൾ ബാധിക്കാത്ത തായിട്ടുള്ള മൃഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന് തെരഞ്ഞെടുത്ത് നമുക്കതിനെ കൃഷി ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതുപോലെ ഇതുപോലെ കൃഷി ചെയ്യുന്നവർ ഇപ്പോൾ കോഴി തന്നെ നമുക്ക് സാധാരണ എല്ലാവരും മുട്ട മുട്ട കഴിക്കുന്നവർ മുട്ട എന്ന് പറഞ്ഞാൽ അതിൽ കാത്സ്യം ഒക്കെ ഉള്ളത് കൊണ്ട് ആള്ക്കാർ മുട്ട വാങ്ങിച്ച് ആഹാരം കഴിക്കുന്നതാണ് അപ്പോൾ അത് കൃഷി ചെയ്തില്ലാന്നുണ്ടെങ്കില് അല്ലെങ്കിൽ വീടുകളില് അത് വളര്ത്തീല്ലാന്നുണ്ടെങ്കില് ആ ഒരു കാത്സ്യത്തിന്റത് കുറവ് നമുക്ക് വേറെന്തെങ്കിലും രീതീലതിനെ അന്വേഷിക്കേണ്ടതായിട്ട് വരും അതുപോലെ പാൽ പശു പശുക്കളെ വളര്ത്തുന്നവരെ നമ്മൾ അവരെ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഒരു സ്ഥലം എടുക്ക്വാണെങ്കിൽ അവിടെ ഏതെങ്കിലുമൊരു രണ്ട് വീട്ടിലായിരിക്കും ഇപ്പോൾ പശു വളര്ത്തുന്നത് അപ്പോൾ അവരെ നമ്മൾ സപ്പോട്ട് ചെയ്താലവർ ആ പശു വളര്ത്തൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം കവറ് പാലൊക്കെ യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതില് നിന്ന് അവരൊക്കെ സപ്പോട്ട് ചെയ്താൽ അവര്ക്ക് പശു വളര്ത്തലിന് അവര്ക്ക് കുറച്ചൂടി കോണ്ഫിഡന്സ് കിട്ടും അതിനി ചെയ്യാം നമുക്ക് അപ്പോൾ മറ്റുള്ളവര്ക്കത് നമ്മളെ കൊണ്ട് ഹെല്ത്ത്യായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അതൊക്കെ നമുക്ക് അത് കഴിച്ച് കഴിഞ്ഞ് നമുക്ക് ആരോഗ്യം കിട്ടുന്നതാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്യാം പിന്നെ അവരെ നമുക്ക് സപ്പോട്ട് ചെയ്യാം പിന്നെ സര്ക്കാര് പദ്ധതികളില് നിന്ന് ഇത് പോലെ സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ആട് വളര്ത്തല് ആണെങ്കിലും ലോണക്കെ കിട്ടുന്നുണ്ട് കോഴി വളര്ത്തലിന് ലോണ് കിട്ടുന്നതായിട്ട് എനിക്കറിവില്ല പക്ഷേ കോഴികളെയൊക്കെ ഇങ്ങനെ അയല്ക്കൂട്ടം അങ്ങനെ പഞ്ചായത്തിന്റെ ഇതീന്നൊക്കെ കോഴികളെ ഇങ്ങനെ കിട്ടുന്നുണ്ട് അപ്പോൾ അവര്ക്ക് കോഴികളെ കൊടുക്കും അവരത് വളര്ത്തുകാ അത്രേയുള്ളു ആടുകളെ ആട് വളര്ത്തുന്നതിനൊക്കെ ലോണ്കളുമുണ്ട് അതീ ലോണ്ണ്ട് ലോണൊണ്ട് ആട് വളര്ത്തുന്നതിനായിട്ട് പശു വളര്ത്തെന് വളര്ത്തുന്നതിനൊക്കെ ആയിട്ടും ലോണൊണ്ട് ഈ തൊഴിലാളികളെ ലക്ഷ്യമിടുന്ന ഏതെങ്കിലും പദ്ധതികൾ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ആട് വളര്ത്തലിന് മാത്രമായിട്ടുള്ള ഒരു കൂട്ടം ആള്ക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ വിളിച്ച് നമുക്ക് എന്താണ് അതിന് അവേര്നസ് കൊടുക്കാം എങ്ങനെയോ എങ്ങനെ ഏതൊക്കെ തരത്തിൽ ആടിനെ നമുക്ക് സംരക്ഷിക്കാം അല്ലെങ്കിൽ അതിന്റെ കൂട് കാര്യങ്ങള് അതിന് ഫുഡായിട്ട് കൊടുക്കുന്നതിനും അതിനും അതിന്റെ ആരോഗ്യം നോക്കണമല്ലോ അപ്പോൾ പിന്നെ വൃത്തി അതിന്റെ കാര്യങ്ങളൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് അവര്ക്ക് അവേര്ന്നസ് ക്ലാസുകള് നമുക്കിപ്പോൾ പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ അല്ലെങ്കിൽ അയൽക്കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഏത് ഇതാണ് സാര് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങള് തൊഴിലില് നമുക്ക് മികച്ചതാക്കാന് വേണ്ടീട്ട് എളുപ്പമാക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ പഞ്ചായത്തിന്റിതിലാണെങ്കിലും കോഴി വളര്ത്തല്ന് ആയണെങ്കിലും ഇപ്പോൾ ആട് പശു അതിനൊക്കെ ഒരുപാട് അവേര്ന്നസ് ക്ലാസുകൾ ഇപ്പോൾ പഞ്ചായത്തിനിതിലും സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്കതിന് ഉള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അവരായിട്ട് കോണ്ടാക്റ്റെ ചെയ്യാം ഇനി ആട് വളര്ത്തലിന് എന്തൊക്കെ നിര്ദ്ദേശങ്ങളാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ അസുഖം വരാതെ അതിനെ എങ്ങനെയൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റെ ചെയ്യാം എന്നുള്ള അവരെടുത്ത് ഡൌട്ട് ചോയിച്ചഴിഞ്ഞ അവരുറപ്പായിട്ടും നമുക്കതിനുള്ള കാര്യങ്ങൾ സൗകര്യങ്ങൾ ഒരുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടേന്ന്വച്ച അവരുമായിട്ട് പഞ്ചായത്തില് അല്ലെങ്കിൽ തൊഴിലുറപ്പ് അതുപോലെ പദ്ധതികളിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഘടനകളില് അവരുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നമുക്ക് വേണ്ട നിര്ദ്ദേശങ്ങള് തരാനും അവര്ക്ക് നമുക്കവരോട് റിക്വസ്റ്റെ ചെയ്യാന് പറ്റും അപ്പോൾ അവരതനുസരിച്ച് നമുക്ക് ചെയ്തും തരുന്നതായിരിക്കും